ഷാജി തോമസ് എമിൽഡ ഡെല്ല അന്ന റൈമി ജിസ്മി ഹെലന റ്റിൻസി ഐശ്വര്യ ആരതി അനാമിക സാന്ദ്ര വർഷ അയോണ അലീന ആൽബി മാർട്ടിൻ ഡെന്നിസ് റോമോൻ